അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ കലാരൂപങ്ങള് ഏറ്റവും കൂടുതല് കാണപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കഥകളി തിരുവാതിര തുള്ളൽ തുള്ളൽ തന്നെ പലവിധത്തിലുണ്ട് ഓട്ടം തുള്ളല് തെയ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് തെയ്യം മലബാർ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന തെയ്യം കലാരൂപം മറ്റു രാജ്യങ്ങൾക്ക് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അതിലൊരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളുവൊക്കെ ഉള്ളതാണ് അപ്പോൾ തെയ്യം എന്ന് പറയുന്ന കലാരൂപം മറ്റു രാജ്യങ്ങൾക്ക് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്